ഹലോ ആരായിരുന്നു എന്തായിരുന്നു വിളിച്ചത് അ എത്രപേർക്കുള്ള ചായയും കടിയുമാണ് വേണ്ടത് പഴംപൊരിയുണ്ട് ബോണ്ടയുണ്ട് ഉള്ളിവടയുണ്ട് പഫ്സ് ഉണ്ട് സമൂസ അല്ല സാൻവിച്ച് വട്ടയപ്പം ഉണ്ടല്ലോ ചേച്ചിക്ക് എത്ര എണ്ണം വേണം എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ട് എ

അ ഓക്കേ അ ഓക്കേ തരാമല്ലോ ചായയോ കാപ്പിയോ എന്നതേലും വേണോ അ സാധനങ്ങളൊക്കെ ചൂടുള്ളതാണ് ചൂടോടെ ഉണ്ടാക്കിത്തരാം ചായയോ ചായയോ കാപ്പിയോ ആവശ്യമുണ്ടോ അ ചായയും കാപ്പിയും ഉണ്ട് ഏതുവേണമെങ്കിലും തരാം

അ തരാം തരാം തരാം സമയം പറ എപ്പോഴത്തേക്കാണ് വേണ്ടത് അ തരാം എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് തരാം അ പള്ളിയുടെ പേരൊന്നു പറയുമോ അ ഒ കൊണ്ട് തന്നേക്കാം കേട്ടോ ഓക്കേ അഡ്വാൻസ് പേയ്മെൻറ്റ് വല്ലതും വേണോ അ അഡ്വാൻസിൻ്റെ പേം അഡ്വാൻസ് പേയ്മെൻറ്റ് വേണം കേട്ടോ

രണ്ടായി ഇരുനൂറ് രൂപ മതി ഇരുനൂറ്

മൊത്തം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ

ഡിസ്കൗണ്ട് ഒന്നും ഇല്ല കേട്ടോ ഇല്ലില്ലില്ല ഇനി ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ അടുത്തതിന് ഡിസ്കൗണ്ട് തരാം കേട്ടോ ഉച്ചയ്ക്ക് ചോറും കറിയുമൊക്കെ എന്തേലും വേണോ ഉച്ചയ്ക്ക് ചോറും കറിയുമൊക്കെ എന്തേലും വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ട് വേണ്ട അ അ ഇതിനുമുൻപ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അ ഓക്കേ ഓക്കേ ഇതിനു മുൻപ് ഞങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അ ഓക്കേ നല്ലതായിരുന്നോ എന്താണ് അഭിപ്രായം അ അ ഓക്കേ ഓക്കേ അ ഓക്കേ ഓക്കേ അ ചോറിൻ്റെ കാര്യം ഉച്ചയ്ക്ക് പറയല്ലേ ഇച്ചിരി നേരത്തെ പറയണേ ഉച്ചയ്ക്കാണ് വേണ്ടതുകൊണ്ട് അ ഇന്ന് വൈകുന്നേരമെങ്കിലും ചോറിൻ്റെ കാര്യം പറയണേ എന്നാലേ നാളെ രാവിലെ ഉച്ചയാവുമ്പോത്തേക്കും ആവുകയുള്ളൂ കറികളൊക്കെ റെഡി ആക്കണമല്ലോ സ്നാക്ക്സ് കഴിക്കാൻ പേപ്പറോ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വേണോ റ്റിഷ്യു പേപ്പറൊക്കെ വേണോ അ ഒ എല്ലാം റെഡിയാക്കി തന്നേക്കാം അ അ ഒരു പത്തുമണി കഴിയുമ്പത്തേനും വിളിക്കുവോ അ ഒന്നും കൂടെ ഒന്ന് വിളിച്ചേക്ക് പത്തുമണിയാകുമ്പോൾ പോരെ ഓ ഓട്ടോയ്ക്ക് കൊടുത്തു വിടാവേ ഓട്ടോക്കാരൻ്റെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടാൽ മതിയെ ആ ഓക്കേ